എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് സ്കൂട്ടി ഓടിക്കുക എന്നുള്ളത് അതങ്ങനെ റയ്സ് ആയിട്ട് അങ്ങനെയൊന്നും ചെലഞ്ചിങ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് ഇപ്പം ആരുടെയും സഹായം ചോദിക്കാതെ ഇപ്പം ഒരു ആവശ്യത്തിന് പോകണമെന്ന് വെച്ച് ബസ്സ് കാത്ത് നിൽക്കാതെയും അല്ലെങ്കിൽ വേറൊരാൾ വന്ന വണ്ടിൻ്റെ പുറകിൽ ഇരുന്ന് പോകാതെയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്തിപ്പെടാൻ പറ്റാനും ഒക്കെ വേണ്ടിയിട്ട് സ്കൂട്ടി ഓടിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതൊരു ജോലിയൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് പോകാനും കൃത്യസമയത്ത് എത്താനും അതുപോലെ തന്നെ ഇപ്പം എന്താ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനും ഒക്കെ പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോകാനും ഫ്രണ്ട്സുമായിട്ട് ചുറ്റാനും ഒക്കെ പോകാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ സ്കൂട്ടി നമ്മൾ കിട്ടി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നിനക്കുന്ന നേരത്ത് എത്താൻ പറ്റും അത് അത് അമിതമായിട്ട് നമ്മൾ ബൈക്കിങ്ങിൽ എന്താ പറയുക അങ്ങ് അഡിക്റ്റായിട്ട് അങ്ങ് ഭ്രാന്ത് എടുക്കും പോലെയൊക്കെ അങ് ഓടിച്ച് ദുരുപയോഗം ഒന്നും ചെയ്യാതെ മാന്യമായിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിച്ചത് ത നടക്കാനെല്ലാം വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ എൻ്റെ മക്കളെയും കൊണ്ട് പോകാനും മക്കളെ സ്കൂളിലേക്കായാലും ഒക്കെ ബൈക്കിൽ പോകുന്ന പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി വരാനും പിന്നെ റിലേറ്റീവൻ്റെ വീട്ടിലോട്ട് പോകാനായാലും ഒക്കെ എനിക്ക് ഉപയോഗപ്പെടുന്ന ഒന്നാണ് ബൈ ബൈക്ക് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് പിന്നെ സ്കൂട്ടിന്ന് പറഞ്ഞാൽ ആദ്യം ഘട്ടങ്ങളിലൊക്കെ അത് പഠിച്ച് വരുമ്പോഴ്ത്തേക്ക് ആ ഒരു പേടിയുള്ളൊരു കാര്യം കൂടിയായിരുന്നു സ്കൂട്ടി ഓടിച്ചാൽ വീഴുമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഒരാശയ കുഴുപ്പത്തിലുള്ളതായിരുന്ന സമയമായിരുന്നു പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങളും നമുക്ക് നടത്തണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റാത്ത കാര്യമില്ല എന്തും വരട്ടെ എന്നും പറഞ്ഞ് പഠിച്ചിരുന്നതാണ് സ്കൂട്ടി അപ്പം അത് ഒരു വാഷിയോട് ഏറ്റെടുത്ത് പഠിച്ചു എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് പോകാനും ഒക്കെ പറ്റുന്നതാണ് സ്കൂട്ടി വെച്ചിട്ട് അതുപോലെ എല്ലാവർക്കും സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും ഇന്ന് സ്കൂട്ടി ഓടിക്കാൻ അറിയാവുന്നവരാണ് അപ്പം ആരും തന്നെ പിന്നോട്ടല്ല എല്ലാവരും അവരോരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഡിപെൻഡ് ചെയ്യാതെ സ്വന്തമായി വണ്ടി ഓടിച്ച് ഒക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം പിന്നെ കൂട്ടുകാരെല്ലാവരും അതായത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കൊരു റാലി പോലെയൊക്കെ ആയിട്ടൊക്കെ ബൈക്കിങ്ങിൽ പോയിട്ടുണ്ട് പിന്നെ ഊട് വഴികളിലൂടെയൊക്കെ എന്താ പറയേണ്ടേ ഈ ബൈക്കിങ് കൊണ്ട് പോകും അന്നേരം ഒരു റേസ് പോലെ ചെറിയ റേസിംങ് പോലെ ഫസ്റ്റ് ഒരു ഒരുപാട് ബൈ റൂട്ടുകൾ വഴി നമ്മൾ ഇന്ന സ്ഥലത്ത് ആദ്യം എത്തുന്നത് ആരാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം ആ ബൈക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പം പിന്നെ സ്കൂട്ടി അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്കൂട്ടിയിൽ പോകുന്നു എന്നുള്ളത്